നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് മതം എന്ന് പറയുന്ന നമ്മൾ ഒരിക്കലും തല്ലി പിരിയേണ്ട ആവശ്യം നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓക്കേ അപ്പം മതം നമ്മൾ ഒരിക്കലും ഇതാകണം മതം എന്ന് പറയുന്നത് ഒരു ഇതാണ് എല്ലാവർക്കും അവരവരെ മതത്തിനെ വിശ്വാസമുണ്ട് അപ്പം അവരെ മതത്തെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം ഒന്നാമത്തെ ദിവസം അല്ല മറ്റു മതങ്ങളെ പറഞ്ഞു ഇതൊന്നും ആക്കേണ്ട ആവശ്യമില്ല ളെപ്പഴും മതങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം ഏത് മതമായാലും അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഒരുപോലെ കാണണം എല്ലാവരും മനുഷ്യരാണ് അപ്പോൾ എല്ലാവരും മനുഷ്യരാണ് അപ്പം ആ മനുഷ്യരെ കൂടെ സ്നേഹം ഐക്യം എല്ലാം എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നിലനിൽക്കണം പിന്നെ ആ എല്ലാ മതങ്ങളിലും ഓരോ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഇപ്പം ഏത് മതങ്ങളിലായാലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളൂണ്ട് മതങ്ങളിൽ അപ്പം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നിടത്ത് പിന്നെ അമ്പലത്തിൽ പായസം കിട്ടുന്നത് പിന്നെ നമ്മൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ ബിരിയാണി അതുണ്ട് പിന്നെ ക്രിസ്ത്യൻ മതത്തിൽ ആണെങ്കിൽ അതിൻ്റേതായതുണ്ട് എല്ലാ മതത്തിനും ക്രിസ്മസ് ഓണം പെരുന്നാൾ ഇതക്കെ നമ്മള് ഒരുപാട് പേര് ആഘോഷിക്കുന്നതാണ് അപ്പോൾ ഈ നമ്മളെ ശ്രീനാരായണ പറഞ്ഞ ഒരു ജാതി ഒരു മതം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർ തമ്മിൽ തെറ്റിക്കാനോ മനുഷ്യർ തമ്മിൽ ഇതാക്കാനോ എല്ലാവരും ഒരുപോലെ തന്നെ നിൽക്കണം പിന്നെ മതങ്ങളെ നമ്മൾ എപ്പോഴും വിശ്വസ്തത എല്ലാ മതങ്ങൾക്കും ബഹുമാനം കൊടുക്കണം എത്ര മതങ്ങളായാലും എന്തരായാലും ഒരു ബഹുമാനം നമ്മൾ കൊടുത്തിരിക്കണം നമ്മളിൽ ഏകാതത്വം പണയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇതാവണം ഒരിക്കലും നമ്മൾ മതങ്ങൾ തമ്മിലുള്ള എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ ബഹുമാനമുണ്ട് ആ ഇതുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് അനുസരിച്ചു നമ്മൾ നിൽക്കണം പിന്നെ മതങ്ങൾ തമ്മിൽ നാം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഓക്കെ അപ്പം മതങ്ങളെ കുറിച്ച് ഇതാണ് പറയാനുള്ളത് പിന്നേ നമ്മളിൽ പൗരനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ മതങ്ങളെ ബഹുമാനിക്കാം ഒരു ഏത് മതമായാലും ഇസ്ലാം മതമായാലും ക്രിസ്ത്യനി ആയാലും ഹിന്ദു ആയാൽ ഏത് മതായാലും നമ്മൾ ശ്രീനാരായണ ഗുരു ഒരു ജാതിയുമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാ മനുഷ്യരുടേയും ബ്ലഡെന്നുള്ള സാധനം തന്നെയാണ് വേറൊരു മതത്തിൻ്റെ അതൊന്നുമല്ല മതങ്ങളെ ബഹുമാനിക്കുകയും മതങ്ങളെ ആരാധിക്കുകയും എല്ലാ മതങ്ങളെ പരിപാടിക്ക് പോവുകയും എല്ലാം മതങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇറങ്ങുകയും എല്ലാ മതങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുക എല്ലാം നമുക്ക് ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും ആയാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാ മതങ്ങളിലും ഫ്രണ്ട്സുകളുണ്ട് ഓണത്തിന് ആപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടി പോകും അതുപോലെ തന്നെ പെരുന്നാൾ വരുന്ന ദിവസം ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻമാർക്ക് ക്രിസ്മസ് വരാൻ നേരത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം നമ്മൾ സ്നേഹിക്കണം നമ്മൾ സുഹൃത്ത് വലയം തന്നെ നമ്മൾ മതത്തിൻ്റെ പേരിലൊന്നുമല്ല നമ്മളെ സുഹൃത്തെന്ന് പറയുമ്പോൾ തന്നെ ഒരു മതങ്ങൾ തമ്മിൽ അല്ല മനുഷ്യരാണ് നമ്മൾ മനുഷ്യർ നന്നായി കഴിഞ്ഞ ഈ ലോകം തന്നെ നമുക്ക് പോയ മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉള്ളതാവ മനുഷ്യരാണ് നമ്മൾ മാറേണ്ടത് നമ്മൾ മനുഷ്യന് മതം എല്ലാവരും മതത്തെ ബഹുമാനിക്കേണ്ടതൊന്നും ഞാൻ പറയില്ല മതങ്ങൾ ബഹുമാനിക്കുകയും വേണം പക്ഷേ മതങ്ങൾ തമ്മിൽ എല്ലാവരെയും മതത്തിനും ഒരു ബഹുമാനം കൊടുക്കണം ഓക്കേ ഏതു മതായാലും അവരവരെ മതങ്ങളായാൽ അവരവരെ രീതിക്ക് നമ്മൾ ചെയ്യുക അവരവരെ രീതിയിൽ ചെയ്യുക എന്നും പറഞ്ഞു നമ്മൾ അവരെ രീതിക്ക് മതങ്ങൾ ഏതു മതത്തിൻ്റെ പരിപാടി ആയാലും നമ്മൾ ഇറങ്ങും ഇപ്പം അമ്പലത്തിൽ പരിപാടിയായാലും എന്ത് പരിപാടിക്കായാലും നമ്മൾ എല്ലാത്തിനും നമ്മൾ ഇറങ്ങി നിൽക്കും നമ്മൾ മനുഷ്യരാണ് മതങ്ങൾ തമ്മിലോ മനുഷ്യർ തമ്മിലോ അല്ലല്ലോ മതങ്ങൾ എല്ലാവർക്കും അവരവരെ വിശ്വാസമാണ് എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ വിശ്വാസമാണ് അത് അനുസരിച്ചു മതം എന്നും പറഞ്ഞു നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ന് പറഞ്ഞേക്കുമ്പോൾ ഒരു മതത്തെ കുറിച്ച് പറയേണ്ട ആവശ്യങ്ങൾ ഒന്നും നമുക്ക് ഇതിൽ മതങ്ങൾ എല്ലാവരും മനുഷ്യരാണ് ശ്രീനാരായണഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാം ഒരു ജാതിയാണ് ഒരു ദൈവമായിട്ട് കാണാം മതങ്ങൾ ഓക്കെ ഇപ്പോൾ നമ്മൾ മതത്തെ തമ്മിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല മതം ഇന്ത്യൻ സമൂഹത്തിൻ്റെയും പങ്ക് ഒക്കെയാണ് പിന്നെ ആ എല്ലാ മതങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യം എല്ലാ മതവും ഇനി എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ മനുഷ്യർ നന്നായാൽ ഈ മതം ശ്യൂല്ല മനുഷ്യരൊപ്പം എനിക്ക് എല്ലാവർക്കും സുഹൃത്ത് ബന്ധങ്ങൾ കാണും ഈ ലോകത്ത് സുഹൃദ്ബന്ധങ്ങൾ ഇല്ലാത്ത ആരുണ്ട് എല്ലാവർക്കും സുഹൃത്ത് ബന്ധങ്ങൾ കാണും സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാത്ത ആരുമില്ല ആ സുഹൃത്ത് ബന്ധങ്ങളിൽ എല്ലാവരും ഒരു മതം അല്ല പല പല മതങ്ങളാണ് ആ പല പല മതമെല്ലാം മതങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാറില്ല നമ്മൾ എപ്പോഴും നമ്മൾ ആ നമ്മൾ ഇപ്പോൾ ഫുഡ്ബോൾ കളിക്കാൻ പോയ അതിൻ്റെ കാര്യം പിന്നെ നമ്മൾ നാളെ ഒരു ഓണപ്പരിപാടി നടത്തുന്നു അതിന് നാളെ നമ്മൾ ഒരു ക്രിസ്മസ് പരിപാടി നടത്തുന്നു അതിൻ്റെ ഒരു നബിദിനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമയായിട്ട് ഒരു ഇത് കുറച്ചൊരു കഴിയുമ്പോൾ മുട്ടായി കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമയായിട്ട് നമ്മളെല്ലാം കൂടെ ചേർന്ന് ഒത്തൊരുമയായിട്ട് പൈസ നമ്മളൊക്കെ ഗെയിമുകളൊക്കെ അത് പോലെ തന്നെ ക്രിസ്മസ് വന്നാൽ അത് പോലെ തന്നെ പുൽക്കൂട് കാര്യങ്ങൾ ഇല്ല നമ്മൾ എല്ലാ മതങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെടണം എല്ലാ മതങ്ങളും എല്ലാം നമുക്ക് ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും സന്തോഷമാണ് വന്നാലും സന്തോഷമാണ് എല്ലാം വന്നാലും സന്തോഷമാണ്